നെയ്ത് തുന്നൽ എന്നിവയിൽ എനിക്ക് നെയ്ത്തിനെ പറ്റി ഒരറിവുമില്ല തുന്നലിനെ പറ്റി അറിയാം തുന്നൽ എനിക്ക് താല്പര്യമുള്ള എൻ്റെ തൊഴിലും അത് തന്നെയാണ് തുന്നലിന് നമ്മൾ ഏറ്റവും സെലെക്ടിവായിട്ടുള്ള തുണിയെടുക്കുക രണ്ടാമത് അതിന് ചേർന്ന നൂലുകൾ എടുക്കുക രണ്ടാമത് അതിന് അഡിഷണൽ വർക്ക് ശം ഡെക്കറേഷൻ വേണമെങ്കിൽ അതിനുള്ളത് ചിലപ്പം കോൺട്രാസ്ട് ആയിരിക്കും വേണ്ടത് ചിലപ്പം അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതായിരിക്കും വേണ്ടത് അതനുസരിച്ച് നമ്മുടെ കലയും കൂടി പ്രവർത്തിച്ച് നമ്മുടെ നീറ്റ്നസ്സും അതിനകത്തൊരു മേൻ ഘടകമാണ് കല കലാപരമായിട്ട് ചെയ്തെങ്കിലേ അതിനൊരു നല്ല റിസൾട്ട് വരുള്ളു പിന്നെ ആ നീറ്റായിട്ട് ചെയ്താൽ ആ ഓരോ ആളിൻ്റെയും മെഷർമെൻറ്റും അവരുടെ ബോഡി ഷേപ്പും അവരുടെ ഇൻട്രസ്റ്റും നമ്മുടെ കലയായിട്ട് കൂട്ടി ചേരുമ്പോഴാണ് ഒരു പ്രോഡക്ട് സക്സെസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് അപ്പം അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് വീണ്ടും പ്രചോദനമാകുന്നത് അതിന് പല അതെന്താ എങ്ങനാണ് ചെയ്യണതെന്നതിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹവും കൂടുതൽ എ എക്സ്പീരിയൻസിനും ഒക്കെ അത് നമുക്ക് കൂടുതൽ ഒരു പുതിയ

ഇന്നോവേഷൻ പോലെയോ അല്ലെങ്കിൽ പുതിയൊരു പാറ്റേർണോ എങ്ങനെ വേണേലും അതിനെ പറയാം അങ്ങനെ സെ അവതരിപ്പിച്ച് അവരെ അവരെ താല്പര്യപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുണ്ടെങ്കിൽ ആ ആശയങ്ങളെ നമ്മൾ സ്വീകരിക്കുക അത് എങ്ങനെ ഇമ്പ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിസ്ക് അത് നന്നായിട്ട് ഇമ്പ്ലിമെൻ്റ് ചെയ്യുമ്പം ആ നമ്മുടെ ക്ലൈയൻറ്റിനത് ഇഷ്ടപെടും അപ്പം നമ്മൾ വിജയിച്ചു ഇഷ്ടപെട്ടില്ലെങ്കിൽ അത് അക്സെപ്റ് ചെയ്യാനും അവർ പറയണ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവരുടെ താല്പര്യമോ നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ അവരോട് നമ്മുടെ ഫാഷൻ സെൻസ് പറയുക അതിനുള്ള ഓരോ മെഥേഡും അവർക്ക് ചേരുന്ന എന്താണ് അവരുടെ ഇഷ്ടം എന്താണ് അതൊക്കെ നമ്മളറിയുക നമുക്കുള്ള അറിവ് അവരെ അറിയിക്കുക അങ്ങനെ രണ്ട് പേരും കൂടെ മിൻഗ്ലു ചെയ്ത് ഒരു ഫാഷൻ അവതരിപ്പിക്കുക അതാണ് ഞാൻ ചെയ്യുന്ന രീതി അപ്പോൾ അത് മാക്സിമം അവരുടെ ഇൻട്രസ്റ്റിനാണ് മുൻതൂക്കം കൊടുക്കുക പിന്നെ ചില വ്യക്തികൾക്ക് അതിനോട് വലിയ ഒരു ഐഡിയായും കാണാത്തവരുണ്ട് അവരെ നമ്മുടെ ഐഡിയ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുക അതൊക്കെയാണ് ഒരു സക്സസ്സായിട്ട് തയ്യൽ മുന്നോട്ട് കൊണ്ട് പോകാനുള്ള ഒരു മാർഗ്ഗമെന്നാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത്